ഞങ്ങള് കഴിഞ ദിവസം അഞ്ഞൂറ്റിഅമ്പതു രൂപ കൊടുത്തു വാങ്ങിയാർന്നു ഒരു ആറു കണ്ടൈനർ സെറ്റ് ആ സെറ്റില് ആറു വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത അളവിലുള്ളതായിരുന്നു ഓരോ പാത്രങ്ങളും അതിനുപയോഗിച്ച പ്ലാസ്റ്റിക് വളരെ മോശായിരുന്നു ഞങ്ങള് ഇതില് സാധനങ്ങൾ ഇട്ട് വെച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ നമ്മള് താഴെ ഇട്ട് നോക്കിയത് തന്നെയാണ് നല്ലതാണൊന്നു അറിയാൻ വേണ്ടിട്ട് ഇട്ട് നോക്കിയതാണ് ആ ഇടുമ്പോൾ തന്നെ അത് എന്ത് ചെയ്തു പൊട്ടിപ്പോയി അങ്ങനെ എല്ലാം നമ്മള്അങ്ങനെ ഇട്ട് നോക്കി അപ്പോൾ ഇട്ടതിലൊരു മൂന്നു പ്രോഡക്റ്റ്ങ്കിലും താഴെ വീണു പൊട്ടി ഇപ്പോൾ ഇത്രെയും പൈസകൊടുത്തിട്ട് നമ്മള് അത് വാങ്ങിയേനെകൊണ്ട് നമുക്ക് ഒരു കാര്യവും ഇല്ലാണ്ടായി അതിനുപയോഗിച്ച പ്ലാസ്റ്റിക്കിൻ്റെ മോശമായതുകൊണ്ടാണ് അത് ഇത്രേം മോശമാകാൻ കാരണം അതിൻ്റെ മൂടി വീണപോഴങ്ങാട് പൊട്ടി അപ്പോൾ ഇത്രേം ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടാണ് ആ പാത്രങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ അഞ്ഞൂറ്റിയമ്പത് രൂപ നഷ്ട്ടമായന്നല്ലാണ്ട് മറ്റൊന്നുമില്ല